ആ ഇത് ആരാണ് സംസാരിക്കുന്നത് നുസ്രത്ത് എവിടെയാണ് വീട് എവിടെ ആണ് മുക്കം ആണല്ലേ ആ എന്തായിരുന്നു ആ മൊബൈലിപ്പോൾ നിങ്ങൾ പുതിയത് ആയിട്ട് ഒന്ന് മേടിക്കുന്നുണ്ടോ ആ ഓക്കെ ഞങ്ങളിപ്പോൾ ഇവിടെ ഫോണുകൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓപ്പോ ഉണ്ട് റെഡ്മി റിയൽമി അങ്ങനെയുള്ള ഫോണുകൾ ഒക്കെ ഉണ്ട് റേറ്റെന്ന് പറഞ്ഞാൽ റെഡ്മിക്ക് ആണെങ്കിൽ പതിനഞ്ചിൻ്റെ മേലെ ആണ് എല്ലാത്തിനും വരുന്നത് നിങ്ങള കൈയിൽ ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ ഏതാണെന്ന് ഒന്ന് പറയുവോ ഓപ്പോ ആണല്ലേ ആ ആ അതിന് മേടിച്ചപ്പോൾ എത്ര ആയിരുന്നു റേറ്റ് ആ ഓപ്പോ ഇപ്പോൾ പന്ത്രണ്ടിൻ്റെ മേലേക്ക് ഉള്ളത് ആണ് ഉള്ളത് പന്ത്രണ്ടിൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ഒരു പതിനാറ് അങ്ങനെ ഒക്കെ ആണ് പിന്നെ ഞങ്ങൾ ലോൺ ആയിട്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ഇപ്പോൾ നിങ്ങൾ ആ മാസം മാസം നിങ്ങൾക്ക് പറ്റുന്ന അത്ര അടച്ചാൽ മതി ഒരു ആയിരത്തിൻ്റെ അടുത്ത് ഒക്കെ അടച്ചാൽ വേഗം വേഗം കഴിയും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം ഉള്ള പോലെ ചെറിയ ഒരു പൈസ എമൗണ്ട് ആയിട്ട് അടച്ചാൽ മതി ആ നിങ്ങളിപ്പോൾ ഏതാണ് ഫോണിന് ഇപ്പോൾ നോക്കുന്നത് സാംസംഗ് ഉണ്ട് ഇപ്പോൾ സാംസംഗ് പല റേറ്റിന്റെയും ഉണ്ട് പതിനെട്ടിൻ്റെ ഉണ്ട് മുപ്പതിൻ്റെ ഉണ്ട് ഇരുപത്തിയഞ്ചിന്റെ ഉണ്ട് അങ്ങനെ ഒക്കെ ആണ് ഇപ്പം ഉള്ളത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷോപ്പ് ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഈ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്താൽ മതി ആ നിങ്ങള വീട് എവിടെ ആണ് പറഞ്ഞത് കോഴിക്കോട് മുക്കം ആണല്ലേ ഓക്കെ ഓക്കെ ആ എന്നാൽ ന്യൂ ഫോൺ എന്തായാലും വാങ്ങുക ആണെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ ഷോപ്പിലേക്ക് വരണം കേട്ടോ ഗിഫ്റ്റ് വൗച്ചർ അങ്ങനെ ഒക്കെ ഉണ്ട് സമ്മാനങ്ങളൊക്കെ അങ്ങനെ കൊടുക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ മേടിക്കാൻ എന്തെങ്കിലും താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ ഈ കോളൊന്ന് ഏത് നമ്പറിൽ ഒന്ന് കോൾ ചെയ്താലും മതി കേട്ടോ ഓക്കെ